ഇന്ത്യയിൽ മലയാളം സംസാരിക്കുന്നതിൽ ഒട്ടനവധി ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം വേറെ സംസ്ഥാനത്തുള്ള ആൾക്കാരും ഈ മലയാളം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും അവർക്കു മലയാളം കേൾക്കാൻ ഇഷ്ടവാ പഠിക്കാൻ കുറച്ചു പ്രയാസമാണെങ്കിലും അവർക്കു എന്തോ ആ സ്ലാങ്ങിനോടും അത് പറയുന്ന രീതിയോടും അവർക്കു ഭയങ്കര ഇഷ്ടവാ അവരതു ശ്രമിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനക്കാർ അവരത് കൂടുതൽ ആഗ്രഹിക്കുകയും അവർ ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവർ പഠിക്കാനും അവർ അവർ മലയാള സിനിമകൾ കാണുകയും മലയാള പാട്ടുകൾ കേൾക്കുകയും മലയത്തിലുള്ള മിക്ക കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുകയും അവരതു ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അത് അവർ പഠിക്കണം അവർക്ക് അത് അവർക്കത് ഉപയോഗിക്കണം ഈ മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാര് മലയാളം സംസാരിക്കുന്നിടത്തേക്ക് വന്നിട്ട് അവരത് സംസാരിക്കാൻ ശ്രമിക്കുകയും ഒട്ടനവധി ആൾക്കാര് പഠിക്കുകയും ചെയ്യുന്നുണ്ട് പഠിക്കാനും എളുപ്പമാണ് മനസിലാക്കാനും എളുപ്പമാണ്